എൻ്റെ അടുത്ത് ഫോട്ടോകളെന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഫോട്ടോസും ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോട്ടോസും തമ്മിൽ നല്ല ഡിഫറൻസുണ്ട് കാരണം ആ ഫോട്ടോകളും ഈ ഫോട്ടോകളും തമ്മിൽ നോക്കുമ്പം ക്ലാരിറ്റി അതായത് ഫോട്ടോയ്ക്ക് ക്ലാരിറ്റി വളരെ കുറവായിരിക്കും പുതിയതായിട്ടെടുക്കുന്ന ഫോട്ടോസിനാണെങ്കിൽ ഒരുപാട് ക്ലാരിറ്റിയുണ്ട് അത് ഓരോ ഫോണിൻ്റെ സൈസനുസരിച്ചിരിക്കും ഇപ്പം ഇപ്പോഴൊരു ചെടിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ ചെടിയുടെ ഫോട്ടോ ഇപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ ഡിഫറെൻസ് അറിയാൻ പറ്റും അതിൽ മങ്ങി മങ്ങിയായിരിക്കും ഫോട്ടോസൊക്കെ കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഫോട്ടോസ് ഒരുപാട് കയ്യിലുണ്ട് പഴയ ഫോട്ടോസ് ഒരുപാട് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതൊന്നും വലിയ പ്രയോജനമുള്ളതായിട്ടിപ്പോൾ തോന്നുന്നില്ല അതുപോലെ തന്നെ ഡിജിറ്റൽ ഫോട്ടോകൾ ഡിജിറ്റൽ ഫോട്ടോകളും ഇപ്പോഴത്തെ ഈ രീതീലുള്ള ഡിജിറ്റൽ ഫോട്ടോകളെന്ന് പറയുമ്പോൾ എന്താ ഒരു നല്ല ക്ലാരിറ്റിയോടുകൂടിയുള്ള ഫോട്ടോസോ ഇപ്പം നമ്മളൊരു ചെറിയൊരു ഫോക്കസ് ചെയ്തെടുക്കുമ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു വണ്ടിനെ ഫോക്കസ് ചെയ്തെടുത്താലോ നമ്മുടെ ഫോണിലെടുത്താലോ നമ്മുടെ ക്ലിയറായിട്ടത് കിട്ടും അതുപോലെ തന്നെ ഈ ഫോട്ടോസ് പ്രിന്റ് എടുത്ത് കയ്യിൽ വച്ചിരിക്കുന്നത് ഇപ്പോൾ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ കയ്യിലുണ്ട് ആ ഫോട്ടോസ് തന്നെ നമ്മൾ നോക്കി കഴിയുമ്പം ഡിജിറ്റൽ ഫോട്ടോസെടുക്കുമല്ലോ അപ്പം അതിൽ അതിന്റേതായ പരിമിതികളുണ്ട് പണ്ട് ഈ ലെൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അത്രയും ഇതല്ലല്ലോ അപ്പോൾ ഡിജിറ്റൽ ഫോട്ടോസെന്ന് പറയുമ്പം അതിന്ന് ക്ലാരിറ്റി ഭയങ്കര കുറവായിരിക്കും ആ ഒരു അത്രയും ക്ലിയറായിട്ട് കിട്ടത്തില്ല പക്ഷേ ഇപ്പം എൻ്റെയൊക്കെ എനിക്ക് ഇന്ന് ആ ഒരു പ്രിന്റെന്ന് പറയുമ്പം ഇപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എത്ര ദൂരത്ത് നിന്നുള്ള പിക്ച്ചറാണെങ്കിലും ആ ഒരു നല്ല ക്ലിയറായിട്ട് കിട്ടും ആ പഴയ ഫോട്ടോയെന്ന് പറയുമ്പം വൈകാരിക മൂല്യങ്ങളൊക്കെ ഒരുപാട് കാണുമല്ലോ കാരണം എന്താ കുഞ്ഞുനാളിത്തെ ഫോട്ടോസ് മരിച്ചു പോയ ആൾക്കാറുടെ ഫോട്ടോസ് ഇതൊക്കെ ക്ലിയറല്ല എന്നുണ്ടെങ്കിലും അത് ഓർമ്മയിൽ വീണ്ടും വീണ്ടും നമുക്ക് കിട്ടന്നുണ്ട് പക്ഷേ അത്ര ക്ലിയറായിട്ട് നമുക്കൊരിക്കലും പറയാനും പറ്റത്തില്ല പിന്നെ പണ്ടെടുത്ത ഫോട്ടോ പ്രിൻ്റുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് കുഞ്ഞുനാളിലത്തെ ഫോട്ടോസുണ്ട് എൻ്റെ മരിച്ചു പോയ ആൾക്കാരുടെ ഫോട്ടോസുണ്ട് ആ ഫോട്ടോസും ഇപ്പോഴത്തെ ഡിജിറ്റൽ പ്രിൻ്റും തമ്മിൽ വളരെ ഡിഫറൻസുണ്ട് ഇപ്പോൾ ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പം ചിരി വരും കാരണം നമ്മുടെ ഫേസ് കട്ട് പോലും അന്നത്തെ ഫേസ് കട്ട് ഇപ്പോഴത്തെ ഫേസ് കട്ടും തമ്മിൽ ഡിഫറൻസുണ്ട് അപ്പം ആ കുഞ്ഞിലത്തെ ഫോട്ടോസ് അവരെടുക്കുന്ന രീതി നമ്മുടെ പല പല പോസെസ് പോസിലൊക്കെ വച്ചായിരിക്കുമല്ലോ എടുക്കുന്നത് അപ്പം ഒരുപാട് വൈകാരിക മൂല്യങ്ങളുണ്ട് അപ്പം നഷ്ടപ്പെട്ട് പോയാൽ തന്നെ ഭയങ്കര വിഷമമാണ് പിന്നെ ആ ഫോട്ടോസ് നമ്മുടെ എന്താ പറയുക ഈ ഫോട്ടോസ് നമ്മുടെ കയ്യിലുള്ളത് തന്നെ പണ്ടത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഒരു കഴിവുകൊണ്ടാണ് അല്ലാതൊരിക്കലും നമുക്ക് ആ ഫോട്ടോസങ്ങനെ കറക്റ്റായിട്ട് കിട്ടി ഇപ്പോഴത്തെ ഫോട്ടോസിനെ തന്നെ നമുക്ക് താരതമ്യം ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല വ്യത്യാസം തന്നെയുണ്ട് എങ്കിലും ഇപ്പോഴത്തെ ഫോട്ടോസിൻ്റെ രീതിയാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുത്തുളളൂ ഒരുപാട് ക്ലിയറായിട്ട് കിട്ടുകയും ചെയ്യും നമുക്ക് ലാമിനേഷൻ ലാമിനേറ്റ് ചെയ്ത് എടുക്കുകയും ചെയ്യാം അന്നത്തെക്കാലത്തെ ലാമിനേഷൻ എന്നു പറയുമ്പം ഒരുപാട് മൂല്യങ്ങൾ പൈസ ഒരുപാട് കൊടുക്കേണ്ടി വരും അതിന്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം പ്രിന്റുകൾ നമ്മൾ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അതിപ്പം ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട് കുഞ്ഞുനാളത്തെയും മരിച്ചു പോയതുണ്ടല്ലോ മരിച്ചു പോയ ആൾക്കാരുടെ ഫോട്ടോസും പപ്പയുടേയും മമ്മിയുടേയും എല്ലാവരുടേയും ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ട് അത് ഇഷ്ടമാണ് അത് അപ്പോഴത്തെ ആ കുഞ്ഞിന് എൻ്റെ കുഞ്ഞുനാളത്തെ ഡിജിറ്റൽ സംവിധാനമാണെങ്കിലും ഇപ്പോഴത്തെ ഇപ്പോത്തെ ഡിജിറ്റൽ പോലത്തെ ഫോട്ടോസൊക്കെയാണെങ്കിലും വളരെ മെച്ചപ്പെട്ടത് തന്നെയാണ് ഒരു വലിയ കുഴപ്പമായിട്ടെനിക്ക് തോന്നുന്നില്ല